ആ ഹലോ ഹർഷി ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ ഞാൻ പാസ്പോർട്ട് എടുത്തുവരുന്ന അപ്പം ഇപ്പ എൻ്റെ മാര്യേജ് കഴിഞ്ഞ് കെട്ടോ അപ്പം എനിക്ക് പുറത്തോട്ട് ഇക്കായുവായിട്ട് ഒന്ന് പുറത്തോട്ട് പോകാനായിരുന്നു അപ്പം ഇനി അതിനകത്ത് ഹസ്ബൻറ്റിൻ്റെ പേരൊക്കെ ചേർക്കണോ അഡ്രസ്സൊക്കെ മാറ്റണോ അങ്ങനെയൊര് ചെറിയ സംശയം അപ്പോൾ ഇനി അതിന് ആധാറിൻ്റെ ഓഫീസില് പോയാൽ മതിയോ അക്ഷയായില് പോയാൽ മതിയോ അതോ പാസ്പോർട്ടാഫീസി പോയാ മതിയോ എന്തായിരിക്കും അതിനൊരു വഴി എനിക്കിപ്പം പുറത്ത് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഒന്നു പുറത്തോട്ട് പോകാനായിട്ട് ഇക്കായുവായിട്ട് കുറച്ച് കറങ്ങാൻ പോവാനായിട്ടൊക്കെ ആയിരുന്നു അപ്പം പാസ്പോർട്ടിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും അപ്പം അത് ഇനി എന്ത് ചെയ്യണമായിരിക്കും അപ്പം കൊല്ലത്തോഫീസില് പോയാൽ മതിയായിരിക്കുമോ എങ്ങനെയാണ് അപ്പം അതിൻ്റെ ഇത് എനിക്കൊര് സംശയം അപ്പം പേരുമാറ്റുന്നതിനെ പറ്റിയൊക്കെ സംശയം അപ്പം എന്താ വേണം അതിനെ പറ്റി അതാ ഞാൻ വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്